ഹലോ അതെ അതെ ആരാണ് സംസാരിക്കുന്നത് ആ പുത്തന്പുരയിലെ അല്ലേ ആ ആ ഞാനിപ്പം ഓട്ടത്തിലായിരുന്നു മോളേ എപ്പോഴായിരുന്നു പോവേണ്ടത് രണ്ടരയോ ആ എടത്തുവായ്ക്കാണോ ആ ഞാനിപ്പം ചങ്ങനാശ്ശേരിക്ക് ഓട്ടം പോയിക്കൊണ്ടിരിക്കുവാണേ ആ ഞാന് ആ രണ് ആ രണ്ടരയാവുമ്പോഴത്തേക്ക് വരാം ആ എവിടെയാണ് നിൽക്കുന്നത് ആ ആ ശരി അത് അത് എത്ര മണി ആവുമ്പം അവിടെ കാണുമായിരിക്കും ആ ആ ഞാനിപ്പോൾ ചങ്ങനാശ്ശേരിക്ക് ഒരു ഓട്ടം പോയിക്കോണ്ടിരിക്കുവാണ് അപ്പം ഞാന് ചങ്ങനാശ്ശേരിയിൽ നിന്ന് തിരിച്ച് വരുമ്പോഴത്തേക്ക് വിളിക്കാം അപ്പം അയാളോട് ടൈറ്റാനിക്കിന്റെ അവിടെ നിൽക്കാന് പറഞ്ഞാൽ മതി അപ്പം ഞാന് അത് വഴി വന്നിട്ട് കൊടി പിന്നെ കുരിശ്ശടിയുടെ അവിടെ അല്ലേ നിൽക്കുന്നത് ആ അവിടുന്ന് എടത്തുവാ പള്ളിക്ക് അല്ലേ ആ അവിടെ ആക്കിയാൽ മതിയോ അതോ വെയിറ്റ് ചെയ്യണോ ആ ശരി ശരി ആ എങ്കിൽ ആ സമയം ആവുമ്പോഴത്തേക്ക് റെഡി ആയി നിന്നോ ആ വേറെ ആരെങ്കിലും ഉണ്ടോ രണ്ട് പേരേ ഉള്ളല്ലേ ആ ഞാന് ചിലപ്പോഴത്തേക്ക് താമസിക്കുമേ കാരണം ഞാന് ചങ്ങനാശ്ശേരിക്ക് ഓട്ടം പോയിക്കോണ്ടിരിക്കുവാണ് അപ്പം ഒരു ഹോസ്പി ആ ഒരു ഹോസ്പിറ്റല് കേസ് ആണ് അപ്പം അവരേക്കൊണ്ട് ഹോസ്പിറ്റലിൽ ആക്കിയിട്ട് എത്ര നേരം വെയിറ്റ് ചെയ്യണം എന്ന് അറിയില്ല അപ്പം അത് കഴിയുമ്പോഴത്തേക്ക് ഞാന് വിളിക്കാം ഇല്ലെങ്കില് ഞാന് വേറൊരു ഓട്ടോ ആ സമയത്ത് അറേഞ്ച് ചെയ്തേക്കാം ആ ഞാൻ എന്തായാലും ആ സമയത്ത് വിളിക്കാം ആ ഇത് മോളുടെ നമ്പർ അല്ലേ ആ അപ്പം ഈ നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്താൽ മതിയല്ലോ അല്ലേ ആ ശരി ശരി ആ ഞാൻ എങ്കിൽ പോയിക്കോണ്ടിരിക്കുവാണ് ഞാന് വിളിക്കാമേ ആ ആ ശരി എങ്കിൽ വെച്ചേക്ക്